പൊതുവേ ഇപ്പോൾ കർഷകരൊക്കെ ആണെങ്കിൽ അവർ ഈ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വച്ചാൽ ജൈവകൃഷിയൊക്കെ നടക്കുന്നത് അതിന് വേണ്ടിത്തന്നെയാണ് പിന്നെ ഈ മൃഗങ്ങളെയൊക്കെ കർഷകർ വളർത്തുന്നതിനെ തുടർന്ന് അവർക്ക് വരാവുന്ന മറ്റൊരു അസുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ദുർഗന്ധം മൂലം ഈ കൊതുക് മുട്ടയിടുകയാണ് അങ്ങനെ ദുർഗന്ധം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് കാരണം ഈ പശുക്കളെയൊക്കെ വളർത്തുന്നതിനോട് തുടർന്ന് ഈ ഈ മറ്റേ അവരുടെ വേസ്റ്റ് കുഴികളിൽ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുകയും അവിടെ കൊതുക് മുട്ടയിട്ട് പെരുകാനും അത് ഈ ഡെങ്കിപോലുള്ള അസുഖങ്ങൾക്കൊക്കെ കാരണമാവുന്നുണ്ട് പിന്നെ എന്താ പറയുക വേറെയെന്ന് പറയുമ്പോൾ അവർ കർഷകർ ഈ കൃഷിയിടത്തൊക്കെ എന്താ പറയുക ഈ മറ്റു വന്യമൃഗങ്ങൾ വന്യജീവികളുടെ ശല്യം തടയുന്നയിന് വേണ്ടിയിട്ട് നായകളെയൊക്കെ വളർത്തുന്നുണ്ട് അവയുടെ ഈ അടുത്ത് സമ്പർക്കം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെയുമുണ്ട് അവയുടെ പല്ലോ നഖമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടുകയാണെങ്കിൽ മറ്റു പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അതു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ കാണാറ് അവയ്ക്ക് എന്താ പറയുക പേവിഷബാധ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാറും സാധ്യതയുണ്ട് കർഷകർ മെയിനായിട്ട് ഇങ്ങനത്തെ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണ് നേരിടേണ്ടി വരുന്നത്